ആ സാറെ നമസ്തേ ഹലോ ആ അതെ സാറെ അതെ സാറെ പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ

ആ അ ആ സാറെ ഇതിനു മുമ്പ് നമ്മുടെ റസ്റ്റോറൻറ്റ്ന്ന് എന്തെങ്കിലും സാർ മേടിച്ചിട്ടുണ്ടൊ അതോ ഏതെ ആ അത് സാറെ അത് പിന്നെ സാർ എങ്ങനാണ് ഇതിനോട് താല്പര്യം നമ്മുടെ ഫുഡ് ഐറ്റംസിനോട് പ്രതേകിച്ച് വീട്ടുക്കാരൊടൊക്കെ എങ്ങനുണ്ട് അഭിപ്രായം അത് ഇപ്പോൾ സാറിനിപ്പോൾ നമുക്ക് ഒരു കരിമീൻ പൊള്ളിച്ചത് ഒരു പ്ലയിറ്റ് ഫ്രൈ ഒരു പെയ്റ്റ് വരാൽ കറിയും വേണമല്ലേ അപ്പം സാറെ നമ്മൾ മറ്റുള്ള കൃതൃമങ്ങൾ ഒന്നും കാണിക്കാത്തത് കൊണ്ട് റെയ്റ്റ് ഈ നിലവാരത്തിൽ നിൽക്കുന്നത് ദയവായിട്ടത് അംഗീകരിക്കുക അതുപോലെ തന്നെ നമ്മളീ ആ അപ്പോൾ നമ്മുടെ കരിമീൻ്റെ പിന്നെ കറിക്കായിട്ട് പൊളിച്ചതിന് മുന്നൂറ് രൂപായും ഫ്രൈക്ക് മുന്നൂറ്റൻപത് ഓ വരാളിൻ്റെ കറിക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ കൊണ്ട് തരുന്ന ദൂരവും അനുസരിച്ചുള്ള ചാർജ്ജ് ഈടാക്കേണ്ടി വരും സാറെ ഇപ്പോൾ മാർക്കറ്റൊക്കെ വളരെ ഈ വില കൂടുതലും കാര്യങ്ങളിലും ഒക്കെ നിൽക്കുന്നത് കൊണ്ടാണ് അത് നമുക്കിപ്പം ഒഴിവാക്കാൻ പറ്റാത്തത് സാറെ പിന്നെ പ്രത്യേകിച്ച് പിന്നീട് സാർ ആ സാറിൻ്റെ ഏതെങ്കിലും മറ്റുതരത്തിലുള്ള ആഘോഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഞങ്ങൾ താഴ്മയായിട്ട് താല്പര്യപ്പെടുകയാണ് ആ അതു പോലെ മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാറിന് സാധിച്ചാൽ അതും ഞങ്ങളുടെ ബിസിനസിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് വളരെ ശരി സാറെ സാർ ഞങ്ങളോട് കാണിച്ച സഹകരണത്തിന് വളരെ നന്ദി അറിയിക്കയാണ് അതുപോലെ തുടർന്നും സാറിൻ്റെ സഹകരണം പ്രതേക്ഷിച്ചുകൊളളുന്നു ഓക്കെ സാർ ഇത് എത്രയും പെട്ടന്ന് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുന്നതാണ് ഓക്കെ